വസ്ത്രങ്ങള് ഡിസൈന് ചെയ്യാനായിട്ട് മിക്കവാറും കസ്റ്റമേഴ്സ് തന്നെ ഡിസൈന് കൊണ്ടുവരും അവരുടെ ഒരു അവരിക്കിഷ്ടപ്പെട്ട ഏതാണെന്നു വെച്ചാൽ അത് കൊണ്ടുവരും അല്ലായെന്നുണ്ടെങ്കിൽ അവർ ഡിസൈന് പറഞ്ഞു തരും അല്ലെങ്കിൽ അവർ വരച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും ആരെങ്കിലും പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഓണ്ലൈനിലോ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വാട്ട്സ്അപ്പ് ചെയ്തു തരും ആ ഫോട്ടോ നമുക്ക് വാട്ട്സ്അപ്പ് ചെയ്തു തരും അത് നോക്കിയിട്ട് ചെയ്താൽ മതി ഞാൻ ചെയ്യുന്നത് എന്റെ വീട്ടാവിശ്യത്തിനും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നത് മിക്കവാറും പ്രോഗ്രാമുകളിലൊക്കെ കാണുന്നത് ഇപ്പോൾ സിനിമയിലോ അല്ലെങ്കിൽ സീരിയൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരിതിൽ കാണുമ്പോൾ അത് നോക്കി വെച്ചിരുന്നിട്ട് അത് അതുപോലെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മോഡലാണെങ്കിൽ ഞാനത് നോക്കി ചെയ്യാറുണ്ട് പിന്നെ ചില കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അത് നമുക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലാത്തതാണെങ്കില് മിക്കവാറും ഞാന് പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് വേറെ ആള്ക്കാർ ചെയ്തിട്ടിട്ടുണ്ടാകും ഒരുപാട് ഓപ്ഷന്സ് ഉണ്ട് അതിൽ അപ്പം അതു നോക്കിയിട്ട് അത് നോക്കി വെട്ടുകയാണു ചെയ്യുന്നത് അതിൽ ഡീറ്റേൽ ആയിട്ടുണ്ടാകും ഇപ്പം ഒരു മോഡലന്നെ ഒരുപാട് പേര് അതിൻ്റെ ഡീറ്റേല്സ് ഇട്ടിട്ടുണ്ടാകും അപ്പം ആ വിഡിയോ ഒക്കെ നോക്കിയിട്ടാണ് മിക്കവാറും അങ്ങനെയുള്ളത് ചെയ്യുന്നത്